ഹലോ പറഞ്ഞോളൂ അതെ പറഞ്ഞോളൂ സ്കൂൾ ഷൂ ആണോ അതോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് മാഡം ഉദ്ദേശിക്കുന്നത് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാനായിരുന്നു ആ ഉണ്ട് നമുക്ക് ഇവിടെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒരു ഷൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാഡം വന്നോളൂ ഇല്ല അങ്ങനെ ഉള്ള അങ്ങനെ അങ്ങനെ ഉള്ള അങ്ങനെ മഴ സമയത്തും വെയിലത്തും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഷൂസും നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മളേലുള്ളത് മാഡത്തിന് വന്ന് ചൂസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മഴയത്താണെങ്കിലും ഉപയോഗിക്കണമെ ആ ഒരു ഒരു ടു തൗസൻഡ് എബോവ് ഒക്കെ ആ വരും ആ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിനൊക്കെ താഴ്ന്നതൊക്കെ ഉണ്ട് മാം ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ലെസ് ചെയ്തൊക്കെ തരാം മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ച് വരാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാമല്ലോ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ അതല്ല മാഡം എങ്ങനെ ഞാൻ വാട്ട്സ്പ്പിൽ വേണമെങ്കിൽ അതിൻ്റെ പിക്ച്ചേഴ്സ് ഇട്ട് തന്നാൽ മാഡത്തിന് സെലക്റ്റ് ചെയ്യാനാണെങ്കിൽ ആ ഓക്കെ ഓക്കെ ഞാൻ അപ്പോൾ അത് അത് മാഡത്തിൻ്റെ നമ്പറിലേക്ക് ഞാൻ ഈ ഈ നമ്പറിൽ വാട്ട്സപ്പ് ഉള്ളതാണോ മാഡത്തിന് ആ ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് അതിൻ്റെ പിക്ചേഴ്സ് ഇട്ട് തരാം അല്ല മു മു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഷൂസിൻ്റെ ആവശ്യത്തില് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്ര ശ്രദ്ധിക്കാം നല്ല സാധനങ്ങൾ തന്നെ മാഡം പറഞ്ഞതൊക്കെ തന്നെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ തരാം പിന്നെ അതിനെ സൂക്ഷിക്കേണ്ട രീതികളൊക്കെ നമ്മൾ അതിനകത്ത് പറയാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ആ നമ്മൾ കൂടുതൽ ആ നമ്മൾ ആ ആ നമുക്ക് അതിൻ്റെ പ്രത്യേക സോളോ ഒക്കെ അതിന് ഉള്ളതാണ് ആ ഷൂസിനൊക്കെ പിന്നെ ഒരുപാട് അഴുക്കൊന്നും പെട്ടെന്നൊന്നും അഴുക്ക് പറ്റിയാലൊന്നും അത് പി പിടിച്ചിരിക്കില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് എയർ വാഷ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചൊന്ന് വെയിലത്തൊക്കെ വെച്ച് നമ്മൾ ഉണക്കി ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ കുഴപ്പം ഇല്ലാണ്ടിരിക്കും എന്നും പറഞ്ഞതുകൊണ്ട് നനഞ്ഞാൽ കുഴപ്പം ഉണ്ടെന്നല്ല എങ്കിലും അത്യാവശ്യം നന്നായിട്ട് മെയ്ൻ്റെയ്ൻ ചെയ്യാൻ പറ്റും നമുക്കത് ഞാൻ ആ ഓക്കെ